ആ ഹലോ ഇത് എം എം ട്രാവെൽസല്ലേ ആ ഹലോ പിന്നെ ഞാൻ ഒരു സ്കൂൾ ടൂർ പാക്കേജ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കണതായിരുന്നു അപ്പം ഇതിപ്പം എങ്ങനെയാണതിൻ്റെ നമുക്ക് മൗണ്ടൈൻ സിറ്റി ബീച്ച് അങ്ങനുള്ള എല്ലാം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ടൂറാണ് നമ്മൾ പ്ലാൻ ചെയ്യണത് അതായത് വൺ ഡേ ടൂറല്ല കേട്ടോ ഇത് വൺ ഡേ ടൂറല്ല ആ ഓക്കെ ഓക്കെ ഓക്കെ ആ അപ്പം

ആ പിന്നെ ഇവരെ വണ്ടർലേ പിള്ളേർ വേണം എന്നിങ്ങനെ പറഞ്ഞായിരുന്നു സ്റ്റുഡൻറ്സേ വണ്ടർല വേണം എന്ന് അപ്പം അതിന് അതും കൂടെ പാക്കേജിൽ ഉൾപ്പെടുത്താൻ പറ്റുവോ അമ്യൂസ്മെൻറ് പാർക്ക് ആയാലും മതി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടത് പറയാമേ അതുപോലെ എന്തെങ്കിലും ആ ഓക്കെ ഓക്കെ ആ അതായാലും മതി അതായാലും മതി ഹാപ്പി ലാൻഡ് ഓക്കെ ആ പാക്കേജ് രണ്ട് മാസം രണ്ട് മാസം കഴിഞ്ഞാണ് പിള്ളേരെ ഓണം എക്സാം കഴിഞ്ഞു ഓണം എക്സാം കഴിഞ്ഞിട്ടാണ് ഓക്കെ ഓക്കെ ആ ഓക്കെ ആ ഓക്കേ ഓക്കെ പിന്നെ രണ്ട് ബസ്സ് വേണം കേട്ടോ രണ്ട് ബസ്സ്

ആ ഞാൻ വിളിക്കാം ആ അപ്പം വേറെ ഏതൊക്കെ നമ്മൾ ഇപ്പം വണ്ടീൽ കൂടെ ഒരാളും കൂടെ കാണുവോ ഇപ്പം കിളിയായിട്ടേ ഇപ്പം കുട്ടികളെ ആ ആ ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ ഓക്കെ പിന്നെ ഈ കുട്ടികളെ ഈ ഇപ്പം എത്ര പേർക്ക് ആ ഒരു ടൂറിസ്റ്റിൽ ഇരിക്കാം ബസ്സിൽ ഓക്കേ ഓക്കെ അത് ഞാൻ വിളിച്ചു പറയാം കേട്ടോ അതുകഴിഞ്ഞതിനു ശേഷം ഞാൻ വിളിച്ചു പറയാം പാക്കേജിനെക്കുറിച്ചു സംസാരിക്കാം ഇത് നമ്മുടെ ജവഹർ കോളനി സ്കൂളാണ് പാലോട് കഴിഞ്ഞു വരുന്ന സ്കൂളാണ് അവിടുത്തെ ടെൻതിലെ സ്റ്റുഡൻസിനാണ്

ആ ഓക്കെ ഓക്കെ അപ്പം അത് വലിയൊരുപകാരവായിരുന്നു ആയിരം രൂപയല്ലേ ആവോളൂ അപ്പം ഞാൻ അവരെ അത് ആ ഓക്കെ ഓക്കെ അപ്പം അത് പറയാം ചോദിച്ചു ഓ ചോദിച്ചിട്ട് വിളിക്കാം